സിനിമയാണെങ്കിലും അതെപോലെത്തന്നെ നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലും ഒന്നും ഒന്നിനൊന്നിന് താരതമ്യം ചെയ്യാൻ പറ്റാത്തത്രവിധം വലുത് ആണ് അതെ നമ്മളിപ്പോൾ സിനിമയെടുത്തു പറഞ്ഞാൽ സിനിമാ കഥ കൊണ്ടും കഥാപാത്രങ്ങളെക്കൊണ്ടും അതില് അഭിനയിക്കുന്ന വ്യക്തികളെക്കൊണ്ടും എന്തുകൊണ്ടും ആ സിനിമ നമ്മളെ ഒരുപാട് എൻറ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒന്നാണ്

മലയാള സിനിമയെന്ന് പറയുമ്പോൾ സിനിമയും ഷോട്ട് ഫിലിമുകളും അത്പോലെത്തന്നെ ബാക്കിയെല്ലാ കാര്യങ്ങളും ഇപ്പോൾ സംഗീതമാണെങ്കിൽ നിങ്ങൾക്ക് പാട്ടാണെങ്കിൽ മലയാളം പാട്ടുകളൊക്കെ കേക്കുമ്പോൾ നമ്മക്ക് ആ ഒരു ലോകത്തേക്കെത്തും നമ്മള് ഇപ്പോൾ ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മളെ വേറൊരു അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റുന്ന സംഗീതങ്ങളാണ് മലയാളത്തിലുള്ളത് നമ്മളെ ആ സംഗീതത്തിലേക്ക് പൂർണ്ണമായും ലയിക്കാൻ സഹായിക്കുന്ന സംഗീതങ്ങളാണ് അർത്ഥവത്തായ വരികളാണ് അതേപോലെതന്നെയാണ് നൃത്തവും നമ്മള് നൃത്തം കാണാണെങ്കിൽ ആ കണ്ട് അതില് മുഴുകിപ്പോകും ആ നൃത്തത്തില് നൃത്തത്തില് മുഴുകാന്ന് പറയുമ്പോൾ നൃത്തത്തില് പൂർണ്ണമായിട്ടും നമ്മള് ലയിക്കും ഇപ്പോൾ കഥകളിയാണെങ്കിലും ചാക്യാർകൂത്ത് അതേപോലെ ഒപ്പന ഇങ്ങനെയുള്ള എന്താണെങ്കിലും ഏത് നൃത്ത രൂപങ്ങളാണെങ്കിലും നമ്മള് വേറൊരു വേറൊരു ഇതിലേക്ക് ലോകത്തേക്ക് കൊണ്ടുപോകും നമ്മളങ്ങനെ കണ്ടുനിൽക്കും കണ്ണിന് കുളിർമ്മയേകാന്നൊക്കെ പറയണപോലെയാണത് എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ എൻറ്റർടൈൻ ഒന്നിനെ താരതമ്യം ചെയ്യാൻ പറ്റാത്തത്ര വിധത്തിൽ മനോഹരമാണ് എല്ലാം